എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗീതമെന്ന് പറയുന്നത് മെലഡികളാണ് പൊതുവെ ഒരുപാട് അധികം മെലഡികൾ മലയാളത്തിലുണ്ട് അവ വളരെയധികം ഒരേ സമയം മനുഷ്യനെ ചിന്തിപ്പിക്കുന്നതും മനുഷ്യനെ വേറെ ഒരു തലത്തിലേക്കെത്തിക്കാൻ സാധിക്കുന്ന കുറേയധികം മെലഡികൾ മലയാള സിനിമയിൽ നിന്നുണ്ടായിട്ടുണ്ട് വിദ്യാസാഗറിനെപ്പോലെയുള്ള മഹത്തായ കലാകാരന്മാർ മലയാളം മെലഡീ സോങ്സിനെത്തന്നെ വളരെയധികം ജനകീയമാക്കിയിട്ടുള്ളവരാണ് ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള എല്ലാ വികാരങ്ങളെയും ഉത്തേജിപ്പിക്കുവാനായിട്ട് സംഗീതത്തിന് കഴിവുണ്ട് പ്രത്യേകിച്ച് മെലഡികളെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഏറ്റവും കൂടുതലവൻ്റെ ഉള്ളിലെ പ്രണയവും അതുപോലെത്തന്നെ വിരഹവുമെല്ലാം സംഗീതത്തിലൂടെ അറിയിക്കാനായിട്ട് സാധിക്കുന്ന സോങ്സാണ് മെലഡി അതുപോലെത്തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ജോണറാണ് തമിഴ് തമിഴ് ഇൻഡസ്ട്രിയിലെ റാപ് സോങ് അഥവാ കുത്ത് സോങ്സെന്ന് പറയുന്ന സോങ്സ് അതായത് വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു ട്രാക്കിലൂടെ കടന്നുപോകുന്ന കേട്ട് നിൽക്കുന്ന മനുഷ്യന് അവൻ നിൽക്കുന്ന ആ ഒരവസ്ഥയിൽ നിന്ന് പെട്ടന്ന് തന്നെ മാറ്റാനായിട്ട് തമിഴ് സോങ്സിന് സാധിക്കുന്നുണ്ട് പുതിയ എ ആർ റഹ്മാൻ എ ആർ റഹ്മാനെ പോലെയുള്ള വളരെ മികച്ച സംഗീത സംവിധായകരും ഇപ്പം ആധുനിക കാലഘട്ടത്തിലേക്ക് വരികയാണ് അനിരുദ്ധ് രവിചന്ദ്രയെ പോലെയുള്ള മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ ഒരുപാട് മനോഹരമായ രീതിയിൽ നമുക്ക് സംഗീതം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എനിക്ക് മലയാളത്തിലെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിലുള്ളതിൽ വച്ച് ഷാൻ റഹ്മാൻ ഹേഷാം അബ്ദുൾ വഹാബ് തുടങ്ങി ഒരുപാട് അധികം വളരെ മികച്ച സംഗീതസംവിധായകരുണ്ട് അവരുടെയൊക്കെ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുകയെന്നത് തന്നെ ആണ് മനസ്സിന് വളരെയധികം കുളിർമ്മ ഏകുന്നൊരു കാര്യമാണ് ഷാൻ റഹ്മാനെപ്പോലെയുള്ള ഷാൻ റഹ്മാൻ്റെ തട്ടത്തിൻ മറയത്ത് പോലെയുള്ള സിനിമകളിലെ സോങ്ങായാലും അതുപോലെത്തന്നെ ഹേഷാമിൻ്റെ അടുത്തിടെ റിലീസായ ദർശന പോലെയുള്ള സോങ്സ് അതുപോലെത്തന്നെ അനിരുദ്ധിൻ്റെ ത്രീയിലെ സോങ്സ് അതുപോലെത്തന്നെ കാതുവാക്കിലെ രണ്ട് കാതൽ തുടങ്ങിയ വളരെയധികം മികച്ച സോങ്സുകൾ നമുക്ക് മെലഡിയും അതേസമയം എ ആർ റഹ്മാൻ്റെ പഴയകാല സോങ്ങുകളും എല്ലാം വളരെയധികം മനുഷ്യനെ മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന സോങ്സാണ് വിദ്യാസാഗറിനെ വിദ്യാസാഗറിനെപ്പോലെയുള്ള മഹത്തായ ലെജൻസുകൾ ചെയ്ത് വച്ചിരുന്ന പലയധികം വർക്കുകളുണ്ട് ഇപ്പോൾ അടുത്തിടെ റിലീസ് ചെയ്ത ദേവദൂതനകത്തെ സോങ്സൊക്കെ എത്ര എത്ര കൊല്ലം കഴിഞ്ഞാലും മനുഷ്യൻ്റെ മനസ്സിൽ മായാതെ നിൽക്കും അങ്ങനെ ഒരു കഴിവ് സംഗീതത്തിനുണ്ട് സംഗീതം എത്രയൊക്കെ മനുഷ്യരെ ഏത് ഇപ്പോൾ ഈ ജനറേഷനിലെ സംഗീതം എത്രയൊക്കെ ജനറേഷൻ കഴിഞ്ഞാലും നമ്മുടെ ഭൂമിയിൽ നിലനിൽക്കും അത് സംഗീതത്തിന് മാത്രമുള്ളൊരു പ്രത്യേക പവറാണ്